ഇന്ന് ഇന്ത്യ അഭിമുകീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കാപ്പുറത്ത് വരുന്ന ദുരന്തങ്ങളാണ് ദുരന്തങ്ങളെന്ന് പറയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പങ്ങൾ പിന്നെ പേമാരി കൊടുങ്കാറ്റ് സുനാമി പോലെയുള്ള അവസ്ഥകൾ ഇന്ന് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള ജനതകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഓർക്കാപ്പുറത്തുണ്ടാവുന്ന വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ സുനാമിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ സുനാമി മൂലം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാനോ രക്ഷപ്പെടാനോ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറത്തേക്ക് കാറ്റടിക്കുകയും തിരമാലകൾ കടൽ ക്ഷോഭിക്കയും ഒക്കെ ചെയ്യുന്നു അങ്ങനെയുണ്ടാവുന്ന വളരെ നാശനഷ്ടങ്ങൾ മനുഷ്യ ജീവനെ ഹാനിക്കുന്ന വിധം അല്ലെങ്കിൽ കാർഷിക വിളകളെ ഹാനിക്കുന്ന വിധം ഒക്കെ സുനാമികൾ വന്നു ചേരാറുണ്ട് പിന്നീട് മറ്റൊരു മേഖലയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങളുണ്ടാവുമ്പോൾ നമുക്ക് മുന്നറിയിപ്പുകൾ പലപ്പോഴും കിട്ടാൻ സാധ്യതയില്ലാതെ പോകുന്നു അല്ലെങ്കിൽ മുന്നറിയിപ്പ് കിട്ടാതെ വരുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ വൻ ദുരന്തങ്ങൾ മനുഷ്യ ജീവന് ഹാന ജീവന് ഹാനികാരം ഉണ്ടാകുന്നത് കൂടാതെ തന്നെ പ്രകൃതിയിലെ നമ്മുടെ വസ്തുവകകൾ കാർഷിക മേഖലകൾ കെട്ടിടങ്ങൾ ഒക്കെ നശിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകന് പടുത്തുയർത്തുന്ന അല്ലെങ്കിലൊരു മനുഷ്യ ജീവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വസ്തു വകകളും മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് നശിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഭൂമി ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെത്തന്നെ മഹാമാരികൾ ഒക്ക വന്ന് കഴിയുമ്പളത്തേന് പ്രകൃതിക്ഷോഭങ്ങൾ വന്ന് കഴിയുമ്പം നമുക്കിന്ന് അറിയാം വയനാട്ടിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു പ്രദേശം മുഴുക്കനും നശിപ്പിച്ച് കൊണ്ട് ആ മല വെള്ളപ്പാച്ചിലിലൂടെ ഒത്തിരിയേറെ ജീവനുകൾ നഷ്ടപ്പെടുകയും ഒരു അഞ്ഞൂറോളം ജീവൻ നഷ്ടപ്പെടുകയും ആയിരത്തോളം ഭവനങ്ങൾ ഭവനരഹിതരായ മനുഷ്യരാവുകയും ചെയ്ത ഒരു അവസ്ഥ കാർഷിക മേഖലകളൊക്കെ ഒത്തിരി തകർത്തെറിഞ്ഞു കൊണ്ട് പറിച്ചു മാറ്റിക്കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഉള്ള രാജ്യ സ്ഥലങ്ങളിലും മറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങളാണ് ദുരന്തങ്ങൾ കൊടുങ്കാറ്റും പേമാരിയും പോലുള്ള ദുരന്തങ്ങൾ ഭൂമികുലുക്കം പോലുള്ള ദുരന്തങ്ങൾ അതുപോലെത്തന്നെ അഗ്നി പർവതങ്ങളുടെ പൊട്ടിത്തെറികൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന നമ്മളെ ഇന്ത്യയിൽ ഒത്തിരിയേറെ അഗ്നിപർവ്വതങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് സാധാരണ കണ്ടുവരാറില്ല കൂടുതലും ഇൻഡ്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് സുനാമി പോലുള്ള വൻ കൊടുങ്കാറ്റും പേമാരിയും മറ്റൊന്ന് ഭൂമികുലുക്കം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങൾ ഇത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഇത് കൊടുങ്കാറ്റും പേമാരിയും അതുപോലുള്ള ഭൂമികുലുക്കം പോലുള്ള കാര്യങ്ങൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മുന്നറിയിപ്പുകളൊക്കെ മനുഷ്യജീവന് ഒത്തിരിയേറെ വില കൊടുത്ത് കൊണ്ട് മുന്നറിയിപ്പുകൾ കൊടുത്തു കൊണ്ട് അവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുവാനായിട്ട് സാധിക്കും